നമുക്കറിയാവുന്ന ഭാഷയെന്നു പറയുന്നത് മലയാളമാണ് മലയാളത്തിൻ്റെ കൂടെ നമുക്ക് പിന്നെ അറിയാവുന്നത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അത്യാവശ്യം നമുക്ക് സംസാരിക്കാന് പറ്റും അതായത് മറ്റുള്ളവര് ഇങ്ങോട്ട് പറയുമ്പോള് നമുക്കത് മനസിലാകും അങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് മനസിലാകും എന്നാലും നമുക്ക് കൂടുതല് ഇത് അതാ കോൺഫിഡൻസോട് കൂടി സംസാരിക്കണമെങ്കില് നമ്മുടെ മലയാളം തന്നെ വേണം മറ്റുള്ള ഭാഷയെ നമ്മള്ക്ക് അത്ര പോരാ ആ രീതിയിലാണ് പക്ഷെ മലയാളമാവുമ്പോള് നമ്മള്ക്ക് അല്ലെങ്കില് എത്ര ഇതെന്ന് പറഞ്ഞാലും നമുക്ക് സംസാരിക്കാം പിന്നെ ഇപ്പോള് മീഡിയായിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ഇംഗ്ലീഷിലാണല്ലോ കാര്യങ്ങള് വരുന്നത് അപ്പോള് നമുക്കത് മനസിലാക്കാം അത്രേയുള്ളു പക്ഷെ ചിലപ്പോള് നമ്മളത് റിപ്ലൈ അങ്ങോട്ട് അയച്ചുകഴിഞ്ഞാല് അത് ശരിയാവണമെന്ന് നമുക്ക് തന്നെ സംശയം തോന്നും നമ്മളിത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു രീതി വരും ഇല്ല മലയാളതലത്തിലാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നത് പിന്നെ മലയാള ഭാഷയാണത് കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഭാഷ അല്ലെങ്കിൽ നമ്മള്ക്ക് ഏറ്റവും ബെറ്ററെന്നു തോന്നുന്ന മലയാളം ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കാം എന്നെ ഉള്ളൂ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അത്രയേ നമ്മള്ക്കു പറ്റൂ വേറെയുള്ള മറ്റുള്ള ഭാഷകളൊന്നും നമുക്കറിയത്തില്ല സംസാരിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മള്ക്ക് അതിനെ താരതമ്യപ്പെടുത്താൻ ഒരുപക്ഷെ ചിലപ്പോള് തമിഴും തെലുങ്കുമൊക്കെ എളുപ്പമായിരിക്കാം നമ്മള് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല അത് ട്രൈ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് നമ്മള്ക്കത് അറിയാന് പറ്റത്തില്ല ഇങ്ങനെ മലയാളമാണ് ഇപ്പോള് നമ്മള്ക്ക് ശ്രേഷ്ഠ ഭാഷയായിട്ട് ഉപയോഗിക്കാന് പറ്റുന്നത്